നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് ഗതാഗത സംവിധാനങ്ങളിപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൽ ബസ്സ് ബസ്സ് തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു ഇത് അതുപോലെ ഓട്ടോറിക്ഷ ടാക്സി പിന്നെ നമ്മുടെ ട്രാവലർ പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജില്ലയിൽ കുറേ ഗതാഗതത്തിന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് മെയിനായിട്ട് ലൈൻ ബസ്സുകള് പിന്നെ കെ എസ് ആർ ടി സി ബസ്സുകള് പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അത് പ്രാദേശികമായിട്ട് ഇതൊക്കെ തന്നെയാണ് റൂട്ടിപ്പോൾ അതായത് കുറേ ദൂരം പോകാനുള്ളതാണെന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ നൈറ്റ് സർവീസുകൾ അങ്ങയുള്ള കാര്യങ്ങളുണ്ട് വോൾവോ സർവീസുകളുണ്ട് പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ അല്ല അത് പിന്നെ നമുക്ക് ഇവിടെയുള്ളത് മെയിനായിട്ടുള്ള ഏറ്റവും പ്രാദേശികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഓട്ടോ മിക്ക സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ഓട്ടോ ചേട്ടന്മാർ അവർ നല്ലൊരു കാര്യങ്ങളാണ് പിന്നെയെന്താണ് പറയുക ഓരോ അവർ നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ആണ് അതുപോലെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാകും ടാക്സി സ്റ്റാൻഡ് മിക്കവാറും എല്ലാ ജംഗ്ഷനിലും മെയിൻ ജംഗ്ഷനുകളിലൊക്കെ ടാക്സി സ്റ്റാൻഡും ഉണ്ടാകും അപ്പോൾ അവിടെ നമുക്ക് ഒരു നാലഞ്ച് ആൾക്കാർക്ക് ഒരു ഇതായിട്ട് പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റും പിന്നെ നമുക്ക് ദൂരം പോകണം അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ വരുന്നത് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ ജില്ല നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം എല്ലാ ഭാഗത്തേക്കും നമുക്ക് ബസ്സ് ഇപ്പോൾ കോയമ്പത്തൂരാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും തിരുവനന്തപുരം എറണാകുളം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ബസ്സ് ബസ്സ് സർവീസുണ്ട് ഇപ്പോൾ അത് ലോക്കൽ സർവ്വീസാണെങ്കിലും അതെ അല്ല സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ എല്ലാ സർവ്വീസുകളും നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് ലഭ്യമാണ് പൊള്ളാച്ചി ഭാഗത്തേക്കാണെങ്കിലും അതിപ്പോൾ അത് ഓരോ ഇപ്പോൾ എന്താണ് പറയുക അതിനനുസരിച്ച് ഫെയർ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ലോക്കൽ ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കമ്മി ആയിരിക്കും പിന്നെ സൂപ്പർ ഫാസ്റ്റാണെങ്കിലും ഫാസ്റ്റ് പാസ്സഞ്ചർ അതിനനുസരിച്ച് നമ്മുടെ ചാർജജ് കൂടും പക്ഷെ നമുക്ക് ഓരോ രീതീലുള്ള പല രീതീലുള്ള സർവ്വീസുകൾ നമുക്ക് ലഭ്യമാണ്